ഞങ്ങളെടുത്ത ആ ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമെന്നു പറയുന്നത് ഞാനും എൻ്റെ കുട്ടികളും കുടുംബവുമൊക്കെ ഒരുമിച്ചുപോയപ്പോൾ ഞങ്ങളെടുത്ത ചിത്രമാണ് ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത ആ ചിത്രം കുട്ടികൾ പലപ്പോഴും സന്തോഷത്തോടെ കാണുകയും സ്റ്റാറ്റസ്സായിട്ട് ഇടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ നല്ലയൊരു ചിത്രമാണത് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഞങ്ങളൊരുമിച്ച് പുറത്തേക്ക് പോവുകയും ഒരു തേയില തോട്ടത്തിൻ്റെ സൈഡിൽനിന്ന് ആ പടം എടുക്കുകയുമൊക്കെ ആയിരുന്നു സെൽഫിയായിട്ടെടുത്ത പടമാണ് കുഴപ്പമില്ലായിരുന്നു നല്ല പടമാണ് അതിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് മേഘങ്ങൾ പറന്നു പോവുന്നതും കിളികൾ മരത്തിൽ വന്നിരിക്കുന്നതും തേയിലച്ചെടികൾ കുറുനാമ്പുകൾ പുറപ്പെടുവിച്ച് തേയിലക്കൊളുന്തെടുക്കാൻ പാകത്തിന് വിളഞ്ഞു നിൽക്കുന്ന ചെറിയ മഞ്ഞും ചെറിയ കാറ്റും ഒക്കെയുള്ള ഒരന്തരീക്ഷത്തിൽ ചുറ്റും ചില മരങ്ങളും കുറ്റിക്കാടുകളുമൊക്കെ എൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ഈ പടമെടുത്തത് ആ പടം ആ സ്ഥലം നമ്മൾ നേരിട്ടു കണ്ടപ്പോൾ അത്രയും ഒരു മനോഹാരിത തോന്നിയില്ലെങ്കിലും പിന്നീട് നമ്മൾ ആ പടമെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ചിത്രമെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് വളരെ നല്ല ഒരു ചിത്രമെന്നു വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുവാനും നമ്മുടെ ഓർമ്മകൾ പുതുക്കുന്നതിനും ഒക്കെ സഹായകമായിട്ടുള്ള ഒരു ചിത്രമാണ് പിന്നീട് പലരും ഈ ചിത്രം കണ്ടപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നുവല്ലോ എപ്പോഴാണെടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ നല്ല പടമെടുക്കാനൊക്കെ ആയിട്ട് അറിയാം എന്ന് ആ പടത്തിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ആ പ്രദേശത്തെ ഒരു മനോഹാരിത അതിലേക്ക് പകർന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ നമ്മളത് എടുത്തപ്പോൾ ഏറെ ഹൃദ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പടങ്ങൾ നമ്മൾ വല്ലപ്പോഴുമൊക്കെ എടുത്തത് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽപ്പോലും ഏറ്റവും ആകർഷണീയമായിട്ട് നമുക്ക് തോന്നിയത് ഭാര്യയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് എടുത്ത ആ ചിത്രമാണ് ആ ചിത്രം എടുക്കുന്നതിനുവേണ്ടി കുറച്ച് ഒരു മലമുകളിലേക്ക് കയറിപ്പോവുകയും ഒരു മഞ്ഞുനിറഞ്ഞ ഒരന്തരീക്ഷത്തിലാണ് അതെടുക്കാനായിട്ട് പോകുന്നത് അത്ര തെളിഞ്ഞ ഒരു കാലാവസ്ഥയൊന്നുമായിരുന്നില്ല ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട് മഞ്ഞ് പൊഴിഞ്ഞ് അന്തരീക്ഷം ചെറുതായിട്ടൊന്ന് മൂടിക്കിടക്കുന്നുയെന്നാൽ സൂര്യപ്രകാശം ഉണ്ടുതാനും പക്ഷെ അതൊന്നും ചിത്രത്തിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവും വരുത്താതെ വളരെ മനോഹരമായിട്ടുതന്നെ ചിത്രീകരിക്കാനായിട്ട് നമുക്കത് സാധിച്ചുയെന്നുള്ളതാണ് അപ്പം ചെറിയ തൊപ്പിയൊക്കെ കുട്ടികൾ തലയിൽ വെച്ച് ചെറിയൊരു ഷാളൊക്കെ കഴുത്തിൽ ചുറ്റി ആ തേയിലയുടെ സൈഡിൽ നിന്ന് എല്ലാവരുംകൂടി ഒരുമിച്ചു നിന്ന് എടുത്ത ആ ചിത്രം പല ചിത്രങ്ങളെടുത്തു അതിലേറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഞങ്ങളൊരുമിച്ച് നിന്നെടുത്ത ആയൊരു ചിത്രമാണ് ഒത്തിരി ഞാനാദ്യമേ സൂചിപ്പിച്ച അതിനിടെ കൂട്ടുകാരും ഒക്കെപ്പറഞ്ഞു ഇത് നല്ല മനോഹരമായിട്ട് ഇരിക്കിന്നുണ്ടല്ലോയെന്ന് ഞാനത് ഒന്ന് മറ്റുള്ളവർക്ക് ഞങ്ങൾ ഇട്ടു കൊടുക്കുകയും അവരതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നല്ല ചിത്രങ്ങളെടുക്കാനായിട്ട് മറ്റുള്ളവർക്കും കഴിയും ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ചിലപ്പോൾ നമ്മളിങ്ങനെ വിരസതയോടെയൊക്കെ വീടുകളിലിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടു കഴിയുമ്പോഴും ഒക്കെ ഇച്ചിരി ഇങ്ങനെയുള്ള പഴയ ചിത്രങ്ങളൊക്കെ നമ്മളെടുത്ത് നോക്കുന്നത് നമ്മടെ ആ നല്ല സമയത്തെക്കുറിച്ച് ആ സന്ദർഭങ്ങളെക്കുറിച്ച് ഓർമ്മകൾ വരുന്നതിനും സന്തോഷത്തോടെ നമുക്കത് ആസ്വദിക്കുന്നതിനുമൊക്കെഏറെ സഹായകരമാണ് പലപ്പോഴും ഞങ്ങളുടെ ഇതിലും നല്ല പിരിമുറക്കങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ആൽബമൊക്കെയെടുത്ത് നോക്കും അപ്പോൾ നോക്കുമ്പം ആ നമുക്കിങ്ങനെയുള്ള ആ ആ സന്ദർഭം നമ്മുടെ മനസ്സിലേക്ക് ചിത്രത്തേക്കാളുപരി അന്നതെടുത്ത ആ സന്ദർഭം അതിലേക്ക് നമ്മളെ നയിച്ച ആ സാഹചര്യം ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും അപ്പോൾ ആ ചിന്തകളെ നമ്മുടെ പിരിമുറുക്കത്തെയൊക്കെ ഒത്തിരി മാറ്റുന്നതിന് നല്ല ചിത്രങ്ങൾ സഹായകരമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ എല്ലാവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുമെന്ന് കരുതുകയാണ് ഏതായാലും ഞങ്ങൾക്കത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു